ഹലോ ആ അതെ ട്രിപ്പ് ഏജൻറ്റാണല്ലാ ആ നിങ്ങൾ ആ വയനാട്ടിലേക്ക് വരുമ്പോൾ ഏത് ദിവസാ വരുന്നത് ആ ആ ആ ഇവിടെ എന്ത് ഇവിടെ കുറുവ ദ്വീപ് ഉണ്ട് അതേപോലെ ബ്രഹ്മഗിരി ഹില്ല് കാണാൻ വേണ്ടിയിട്ട് പിന്നെ തിരുനെല്ലി ടെമ്പിൾ പിന്നെ എന്നൂർ എന്ന് പറഞ്ഞ തിരുനെല്ലി തിരുനെല്ലി ടെമ്പിൾ ആ പിന്നെ കുറുവ ദ്വീപ് എടക്കൽ എടക്കൽ കേവ്

ആ ഫുഡ് ഫുഡ് ഒക്കെയാ ആ ഫുഡ് ഇവിടെ തന്നെ ഫുഡ് നമുക്കൊരു നിങ്ങൾ എന്തായാലും സ്റ്റേ ചെയ്യുവാണെങ്കിൽ ഇവിടെ ഹോളിഡേ ഹില്ല് അങ്ങനെ ഇവിടെ വയനാട്ടിൽ തിരുനെല്ലി അമ്പലത്തിലേക്കൊക്കെയാണ് വരുന്നതെങ്കിൽ അവിടൊരു ഇവിടൊരു ഹോളിഡേ ഹില്ല് എന്ന് പറഞ്ഞൊരു ഹോട്ടല് ഉണ്ട് അവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം അവിടുന്നുതന്നെ ഫുഡ് എല്ലാം ഉണ്ടാകും ഒരു അല്ല നാൽപ്പതിനായിരം രൂപേൻ്റെ പാക്കേജാണ് വരുന്നത് ആ നിങ്ങൾ കുറേ പെരുണ്ടാവാണെങ്കിൽ അയിനനുസരിച്ചിട്ട് ഇത് എമൗണ്ട് മാറും പിന്നെ എടക്കൽ കേവ് പിന്നെ ബാണാസുര ആ പിന്നെ എന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് അവിടെയൊക്കെ കാണാനുണ്ട് പിന്നെ വൈത്തിരി വൈത്തിരി പാർക്ക് ഉണ്ട് ആ ലൊക്കേഷനൊക്കെ അയച്ചുതരാം നമ്മളിപ്പോൾ എന്തായാലും പാക്കേജ് തരുമല്ലോ അപ്പോൾ വിളിക്കാം ഒരു ട്രിപ്പെ ആ ഉണ്ടാവും ഏജൻറ്റ്മാരുണ്ടാവും വേറെ ആൾക്കാരുണ്ടാവും ട്രിപ്പിന് ഒരു കോഡിനേറ്ററ് എന്തായാലും ഉണ്ടാവും ആ ഓക്കേ നിങ്ങളെന്നാൽ ടൈമാവുമ്പോൾ വിളിക്കൂ കേട്ടോ ആ ഓക്കേ ഓക്കേ